അടുക്കളയിൽ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് കുടുംബക്കാരുമായി സമയം ചെലവിടാനും എൻ്റെ ചിന്തകൾ പങ്കുവെക്കാനും അടുക്കള ഒരു വേദിയാണ് എൻ്റെ കുടുംബക്കാരുമായി കുടുംബത്തിന് അകത്തും പുറത്തുമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഉദാഹരണമായി പ്രാദേശികമായ പ്രധാന കാര്യങ്ങളും പിന്നീട് നാട്ടുവിശേഷങ്ങളും മാത്രമല്ല പിറ്റേദിവസം എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്നും ഞങ്ങളുടെ ചർച്ചാവിഷയമാണ് എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം ഞങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ഞായറാഴ്ചകളിൽ എന്ത് വിഭവമാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി കൂടിയാണ് എൻ്റെ വീട്ടിലെ എൻ്റെ അടുക്കള എന്ന് പറയുന്നത്